പ്രധാനമന്ത്രി പോഷണ പദ്ധതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് കേന്ദ്രസർക്കർ നൽകുന്ന ഭക്ഷ്യസഹായം അതിനെയാണ് പ്രധാനമന്ത്രി പോഷണ പദ്ധതി എന്ന് പറയുന്നത് ഇത് സംസ്ഥാനസർക്കാരിൻ്റയാണ് ഈ പദ്ധതി അവരാണ് ഇത് നടപ്പിലാക്കുന്നതും അതുപോലെ തന്നെ ഉച്ചഭക്ഷണം കുറച്ചും കൂടെ നന്നായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്കീമ് കൂടിയാണ് അല്ലെങ്കിൽ ഒരു പദ്ധതി കൂടിയാണ് ഈ പ്രധാനമന്ത്രി പോഷണ പദ്ധതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും കാരണത്താൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ സാധിച്ചില്ല സാധിച്ചില്ലെങ്കിൽ അത് ഈ അത് ഈ ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ കിറ്റ് രൂപേണ കുട്ടികൾക്ക് വീട്ടിൽ എത്തിക്കുന്നതാണ് അതാണ് ഈ പ്രധാനമന്ത്രി പോഷണ പദ്ധതി എന്ന പദ്ധതികൊണ്ട് കേന്ദ്രസർക്കാർ പുറത്ത് വിടുന്നത്